നമ്മുടെ ബസ് പാസഞ്ചർ ബസ്സ് പാസഞ്ചർ ബസ് നോക്കാണുമ്പോൾ ആറ് ചക്രമാണ് അതിന് മെയിനായിട്ടുള്ളത് ഫ്രണ്ടിൽ ഒരു ഡോറ് ബാക്കിലൊരു ഡോറ് പിന്നെ എമർജൻസി എക്സിറ്റിന് ഒരു ഡോറുണ്ടാവും പിന്നെ സീറ്റുകള് ഇരുപത്തെട്ടാവാം മുപ്പത്തിരണ്ടാവാം അതിൽ ബസ്സുകളനുസരിച്ച് വ്യത്യാസം വരും ലോങ്ങ് റൂട്ട് ബസ്സുകളിപ്പോൾ ഇൻഡർ സ്റ്റേറ്റ് ബസ്സുകൾക്കാവുമ്പോൾ വ്യത്യാസം വരും അതുപോലെ ജില്ലേന്റെയുള്ളിൽ തന്നെ ഈ ചെറിയ രണ്ട് സ്ഥലങ്ങൾ മാത്രം ഓടുന്ന ബസ്സുകൾക്കാവുമ്പോൾ സീറ്റുകളുടെ എണ്ണം കുറയാം അങ്ങനെ പിന്നെ ഡ്രൈവർ സീറ്റ് വലത്തേ ഭാഗത്തായിരിക്കും അവിടെത്തന്നെയാണ് എൻജിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് വരുന്നത് പിന്നെ സ്പ്ലിറ്റായിട്ടുള്ള ഇപ്പോൾ ജനലെന്ന് പറയുമ്പോൾ ഗ്ലാസിൻ്റെ ഉണ്ടാവും അതുപോലെ ഈ പഴയ ഫൈബറിൻ്റെ അതുണ്ടാവാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഷട്ടറിട്ട് ഷട്ടറിൻ്റെ ഇതാണ് വിൻഡോസാണതിൽ കാണാൻ പറ്റുക പിന്നെ മുകളിൽ ക്യാരേജുണ്ടാവും അതായത് അത്യാവശ്യം ചെറിയൊരു കമ്പിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം മറ്റേ നമ്മുടെ ഗുഡ്സും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ബസിൻ്റെ മുകളിലായിട്ടുള്ള സ്ഥലം ഉണ്ടാകും പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ബാഗുകൾ ഒക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു കമ്പി നമ്മുടെ സീറ്റിൻ്റെ രണ്ട് മുകളിലായിട്ടുണ്ടാവും പിന്നെ ഒരു സ്റ്റെപ്പിനി ഉണ്ടാകും ബസ്സിൽ പിന്നെ അത്യാവശ്യം പിടിക്കാനുള്ള കാര്യങ്ങൾ കമ്പി കാര്യങ്ങൾ അങ്ങനത്തെ പിന്നെ ഡീസലിലാണ് മെയിനായിട്ട് എല്ലാ ബസ്സുകളും ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബസ്സുകൾ ഇപ്പോൾ പിന്നെ ഡീസൽ മാറീട്ട് ഇലക്ട്രിക് ബസ് വരുന്നുണ്ട് പിന്നെ സി എൻജിൻ്റെ ബസ് വരുന്നുണ്ട് അപ്പോൾ അതുണ്ട് ഇപ്പോൾ ഡീസൽ എൻജിൻ്റെ പ്രവർത്തനം സാധാരണ ഡീസലിൻ്റെ എൻജിൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ തന്നെയാണ് ബസ്സുകളും പ്രവർത്തിക്കുന്നത് അതിനിപ്പോൾ കപ്പാസിറ്റി എൻജിൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും അപ്പം അതിനനുസരച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഇന്ധനം ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ബസ്സിൽ പറയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സീറ്റുകൾ മിറ നല്ല അടിപൊളി കുഷ്യൻ സീറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്കൊരു പാസഞ്ചർ ബസ്സിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഞാൻ പാസഞ്ചർ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്കൂളിൽ പഠിക്കുന്ന ഇപ്പോൾ എന്താ പറയുക ചെറിയ തൊട്ട് ഒന്നാം ക്ലാസ്സ് മുതൽ സ്കൂൾ ബസ്സിൽ തന്നെയാണ് ഞാൻ സ്കൂളിലേക്കും പോയിരുന്നത് പിന്നെ കോളേജുകളും എല്ലാം സ്കൂൾ ബസ്സിൽ തന്നെയാണ് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് സ്കൂളല്ല പാസഞ്ചർ ബസ്സുകളില് പ്രൈവറ്റായിട്ടുള്ള ബസ്സുകളിൽ തന്നെയാ പോവാറ് അവിടുത്തെ അവരുടെ അവിടെയുള്ള കണ്ടക്ടറായാലും ഡ്രൈവറായാലും അതുപോലത്തെ ആൾക്കാർ നല്ല രീതിക്കുള്ള ഒരു പരിചരണം തന്നെയാണ് നമുക്ക് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു കൃത്യ സ്ഥലത്ത് എവിടുന്നാണോ കയറുന്നേ അവിടെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരേ വണ്ടിയിൽ തന്നെയാണ് പോകാറ് അപ്പോൾ നമുക്ക് കേറണ പോയിൻറ്റ് ഇറങ്ങണ പോയിൻറ്റ് ഒക്കെ നമ്മൾ മറന്നാലും അവർ കറക്റ്റായിട്ട് ഓർത്ത് നമ്മളെ വിളിച്ചിറക്കും അങ്ങനത്തെ നല്ല ഒരു അനുഭവം തന്നെയാണ് എനിക്ക് നമ്മുടെ പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ ബസ്സുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്